ഭക്ഷണം പാകം ചെയ്യുക എന്ന് പറയുന്നത് ഒരു കലയാണ് അതുപോലെതന്നെ ആ കല പകർന്നു കൊടുക്കുന്നതും ഒരു വലിയൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് ഇഷ്ടപ്പെട്ടാൽ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലാതെ മറ്റ് ഇതുപോലെ നമ്മൾ വാമൊഴിയായിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത് പറഞ്ഞുകൊടുത്താൽ അവർക്കത് മനസിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്കു പറഞ്ഞുകൊടുക്കേണ്ട ആളെ നമ്മളുടെ അടുത്തിരുത്തി അതിൻ്റെ ചേരുവകളെല്ലാം പറഞ്ഞു ഉണ്ടാക്കുന്ന വിധം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്കു ആ ഒരു ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ രുചിയും മേന്മയും ഗുണവും ലഭിക്കും